ഹല്ലോ എന്നാ ഉണ്ട് സാറേ വിശേഷം എനിക്ക് ഞാനേ ഈ ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങാൻ വന്നതാ സാറേ എനിക്കൊര് ടൂറിസ്റ്റ് റബർത്തോട്ടവൊക്കെയൊള്ളൊരു ടൂറസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാനായിരുന്നു സാറിന് പരിചയമുണ്ടോ കുഴപ്പമില്ല കാശക്കെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് എനിക്ക് റബ്ബർ തോട്ടവൊക്കെയൊന്ന് കണ്ട് കഴിയുമ്പം എനിക്കാ ഭയങ്കര ഇൻ്റെറെസ്റ്റാണ് അവിടുത്തെ കൃഷികാര്യങ്ങളേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാനായിരുന്നു ഞങ്ങളുടെ കൂടെ ടീമുണ്ട് ഓ ഞങ്ങളിപ്പം കുറച്ച് പേരൊന്നിച്ച് വന്നിരിക്കുവാന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഈ റബ്ബറിനെക്കുറിച്ചൊക്കെ ഒന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങള് വന്നത് ആ കയറി കയറിക്കോളാം ആ കുഴപ്പം ഒന്നുമില്ല വണ്ടിയിൽ കയറി ആ ആ ആ അതെ അതെ എനിക്കറിയാം ഒരു കാ റബറൊക്കെ കാഴ്ച ഇഷ്ടം പോലെ അവിടെ ഈ കാഞ്ഞിരപ്പല്ലിയിലൊക്കെ ഇങ്ങനെ റബറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ആ റബറ് ആ എത്ര ദിവസം കഴിഞ്ഞാണ് നമ്മള് പാല് വെട്ടുന്നത് ശരി ശരി പക്ഷേ ഇത് എല്ലാ രാജ്യത്തും ഈ റബറ് വെക്കാൻ പറ്റുമോ അല്ല അല്ല ഞാൻ ചോദിച്ചത് ചേട്ടാ എല്ലാ രാജ്യത്തും വെക്കാൻ പറ്റുമോ ആ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ഈ തണുപ്പുള്ള രാജ്യത്തൊന്നും ഇത് വെക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കഴിഞ്ഞാൽ കണ്ടു കണ്ടോ ശരി ഞാനേ നേരിട്ട് വന്ന് ആ നമ്മൾ കണ്ട് കഴിഞ്ഞ് നമുക്ക് കൂടെക്കണ്ട് നമുക്കൊരുമിച്ച് സംസാരിക്കാം കേട്ടോ എല്ലാം നേരിട്ട് വന്ന് കാണാം ഓക്കെ ഫൈൻ താങ്ക്യൂ